തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലോ പി ജിയിലോ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ടി വിയിൽ ന്യൂസ് കാണാൻ സാധിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ കൂടുതലും ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ്സ് ആയിരിക്കും നോക്കുന്നത് അപ്പം അവിടെ അതിലൂടെ ആയിരിക്കും മിക്കവാറും നമുക്ക് വാർത്തകൾ അറിയാൻ സാധിക്കുന്നത് അതിലെ വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പൂർണമായി അറിയില്ല അതിപ്പോൾ ചാനൽ ചർച്ചയിലും അല്ല എങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് കാണിക്കുന്ന ഏത് ന്യൂസ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഓരോ ന്യൂസുകളും അവർ അവരുടെ പെർസ്പെക്ടീവിൽ ആണ് അവർ അവതരിപ്പിക്കുന്നത് സോ നമ്മൾ ഫോൺ ഫീഡുകളിൽ കാണുന്നത് മാത്രം കള്ളം അല്ലെങ്കിൽ അല്ലാതെ ചാനലുകൾ കാണുന്നത് സത്യം അങ്ങനെയൊന്നുമില്ലല്ലോ വാർത്ത എവിടെ കണ്ടാലും അത് അവർ അവരുടെ പെർസ്പെക്ടീവിൽ ആയിരിക്കും പറയുന്നത് അത് നമ്മൾ മുഴുവനായി വിശ്വസിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ എന്താണ് നടന്നതെന്ന് മാത്രം അറിയുക അതിൻ്റെ ബാക്കിയുള്ള വശം അവർ അവരുടേതായ രീതിയിൽ ന്യായീകരിച്ചായിരിക്കും പറയുന്നത് എൻ്റെ വീട്ടിൽ ആണെങ്കിലും ഫേസ്ബുക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അവർ അതിനിന്നും വാർത്തകൾ അറിയാറുണ്ട് അവർ ടി വിയും കാണാറുണ്ട് പക്ഷേ ഞാൻ മിക്കപ്പോഴും ന്യൂസ് അറിയുന്നത് ഫോണിൽ നിന്നാണ് കാരണം എനിക്ക് പലപ്പോഴും ടി വി കാണാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഫോണിൽ നിന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ടി വിയിൽ നിന്ന് വാർത്തകൾ അറിയാറുണ്ട്